എമിലിൻ നിൻ്റെ ആംബിഷൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് ബാങ്കിലെ മാനേജർ ആവുക എന്നുള്ളത് എൻ്റെ ചെറുപ്പം തൊട്ടെ എൻ്റെ അച്ഛൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നത് കണ്ട് കൊണ്ടാണ് ഞാൻ വളർന്നത് അച്ഛൻ ആ ജോലി ചെയ്യുന്നത് കണ്ട് കൊണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ബാങ്കിൽ ജോലി നേടാനാണ് ആഗ്രഹം അതിൻ്റെ ഒരുപടി ആയിട്ടാണ് ഞാൻ ഇപ്പോൾ എൻ്റെ കോളേജിൽ എക്കണോമിക്സിൽ ഒരു ബിരുദം എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എത്രത്തോളം അത് സാക്ഷീകരിക്കാൻ പറ്റുമെന്ന് എനിക്കരിയില്ല ഇപ്പോഴെ ഞാൻ ഓരോ ബാങ്കിലേക്കുള്ള പരീക്ഷകൾക്ക് ട്രെയിനിങ് പരീക്ഷകൾക്ക് പരിശീലന നേടിക്കൊണ്ടിരിക്കുകയാണ് എസ് ബി ഐ പോലെയുള്ള ബാങ്കുകളേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ആർ ബി ഐയിലേക്ക് ഒക്കെ ജോലി നേടണം എന്നുള്ളതാണ് പക്ഷെ എസ് ബി ഐയിലേക്കും കിട്ടിയാലും ഞാൻ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കും എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ഞാനും ചെറുപ്പം തൊട്ടേ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് ബാങ്കിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് അച്ഛൻ ഇടയ്ക്ക് പറയാറുണ്ട് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ് ഇടക്കിടയ്ക്ക് കണക്ക് നോക്കലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഈ ജോലി എന്തോ എൻ്റെ മനസ്സിൽ തട്ടിയതാണ് പണ്ട് ചെറുപ്പത്തിൽ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയുവാര് പറയാറുണ്ടായിരുന്നു എനിക്ക് വലിയ ഡോക്ടറാവണം എന്നൊക്കെ പക്ഷെ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബാങ്കിൽ കയറിയാലും എനിക്ക് സിവിൽ സർവീസിലേക്ക് എന്ത് കൊണ്ട് നോക്കി കൂടെന്ന് സിവിൽ സർവീസും എൻ്റെ ഒരു സ്വപ്നങ്ങൾ തന്നെയാണ് സിവിൽ സർവീസിൽ കയറി ഇന്ത്യൻ റവന്യൂ സർവീസ് നേടിയെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് നേടിയെടുക്കാൻ ഞാൻ ആവതും പരിശ്രമിക്കും